ഞാൻ ഒരു നെയ്റോസ്റ്റും ബീഫ് കറിയും ചിക്കന് കറിയുമാണ് ഓര്ഡര് ചെയ്തത് പക്ഷേ എനിക്ക് വന്നത് പൊറോട്ടയും ബീഫ് കറിയും മാത്രമാണ് ഞാന് ഓര്ഡര് ചെ ചെയ്ത സാധനമേ എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ആ ഓക്കെ സര് ഓക്കെ തിരക്ക് കൊണ്ടൊക്കെയാണ് പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങള് ഓര്ഡര് ചെയ്യുന്ന ആള്ക്കാരടുത്ത് നിങ്ങള് ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടത് കുറച്ച് കൂടെ ശ്രദ്ധ ഒക്കെ ആവാം ആ ഓക്കെ എത്ര തിരക്കാണേലും ഇങ്ങനെ ഹോം ഡെലിവറിന്നൊക്കെ പറയുന്ന കാര്യങ്ങള് കുറച്ച് റസ്പോണ്സിബിള് ആയി ചെയ്യേണ്ട കാര്യങ്ങള് ആണ് അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു ചെയ്തില്ലേൽ ഇങ്ങനത്തെ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും ഇത് ഞാന് ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ആക്കുന്നില്ല പക്ഷേ വേറെ വല്ല കസ്റ്റമേഴ്സ് ആണെങ്കില് ഇതിനേക്കാള് വലിയ പ്രശ്നമാക്കും സൊ ഇനിയാണേലും സര് ഇനി ചെയ്യുമ്പോൾ അതിനിപ്പോൾ കുറച്ച് എല്ലാം ശ്രദ്ധിച്ചു ചെയ്യുക അതെ ഞാന് നെയ്റോസ്റ്റും ബീഫും ചിക്കന് കറിയുമാണ് ഓര്ഡര് ചെയ്തത് പക്ഷേ നിങ്ങള് എനിക്ക് എത്തിച്ച സാധനം എന്ന് പറയുന്നത് പൊറാട്ടയും ബീഫും മാത്രമാണ്

ആ ഓക്കെ അരമണിക്കൂറെ ഞാന് വെയിറ്റ് ചെയ്യത്തുള്ളൂ അതില് കുടുതല് ഞാന് വെയിറ്റ് ചെയ്യത്തില്ല ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും ഞാൻ നോക്കത്തില്ല അത് ഓക്കെയാണെങ്കില് മാത്രം നിങ്ങള്ക്ക് തയ്യാറാക്കാം